എനിക്ക് മുറ്റത്തും ടെറസിലും പച്ചക്കറിയും പൂന്തോട്ടമൊക്കെ ആയിട്ട് കൃഷികളൊക്കെ ഉണ്ട് ടെറസിൽ പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള കൃഷികളെ പറ്റുള്ളു വലിയ വേര് ഇറങ്ങുന്ന മരങ്ങൾ തൈകളൊന്നും വച്ച് പിടിപ്പിക്കാന് പറ്റില്ല പിന്നേ കൂടുതൽ വെയിറ്റുള്ളത് ഒന്നും ടെറസിൽ പറ്റില്ല പിന്നേ ടെറസിലുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ കീടങ്ങളെ ശല്യം കുറവാണ് പിന്നേ മറ്റ് മറ്റ് ജീവികളുടെ അക്രമം അതായത് കോഴി ആട് പശൂ അങ്ങനെയുള്ള വന്നിട്ട് കൈ ഇതൊക്കെ കേടുവരുത്തലും ഒക്കെ കുറവാണ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ടെറസിന്റെ മുകളിൽ ചാക്കിൽ വളമൊക്കെ മിക്സ് ചെയ്ത് ചാക്കിൽ വളര്ത്തുവാണെങ്കിൽ നല്ല നല്ല രീതിയിലുള്ള വരുമാനം അതായത് നമ്മൾക്കുള്ള അതിനുള്ള വിളവെടുപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ മുറ്റത്ത് ചെടി പൂന്തോട്ടമൊക്കെ അധികവും മുറ്റത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം ചെടി പറഞ്ഞാൽ അലങ്കാരം അലങ്കാരത്തിനുള്ള ചെറിയ ചെറിയ ഇതൊക്കെ അല്ലെ അപ്പം മുറ്റത്ത് നാലാൾ കാണുന്നിടത്തവുമ്പോൾ ചെടിക്ക് ഒരു ഭംഗിയുള്ളു പച്ചക്കറിക്ക് പിന്നെ നമ്മൾ വാര്പ്പിന്റെ മുകളിൽ എല്ലാവിധ പച്ചക്കറികളും ഒരു വിധമൊക്കെ വീട്ടിലേക്ക് ആവാശ്യമുള്ള അടുക്കളക്ക് ആവശ്യമുള്ള തക്കാളി പച്ചമുളക് വെണ്ട പയർ എന്നേ ചീര ഇങ്ങനെയുള്ള ഇതൊക്കെ ചാക്കിൽ നമുക്ക് വളമൊക്കെ മിക്സ് ആക്കി ഉണ്ടാക്കാം